ഹലോ ഓല ടാക്സി അല്ലേ ഞാൻ മാങ്ങാട്ടുകരയിൽ നിന്ന് വന്ദനയാണ് വിളിക്കുന്നത് എനിക്ക് ഒരു ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇല്ല എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനും എൻ്റെ രണ്ടു ഫ്രണ്ട്സ് ആയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത നമുക്ക് ഒരു മൂന്നാറിലേക്കാണ് പോണെ ഞങ്ങൾ ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് രണ്ട് അതായത് ഇന്ന് പോയിക്കഴിഞ്ഞാൽ ഇന്ന് നാളെ ഇന്ന് ഇപ്പോൾ വണ്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് ഒരു ദിവസം പിന്നെ നാളെ ഫുൾ ഡേ അടുത്ത പിറ്റേ ദിവസം റിട്ടേൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ റോഡ് വഴി തന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ സംഭവം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വാടകയും കാര്യങ്ങളുമൊക്കെ ഒന്ന് അറിയാനായിരുന്നു എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇപ്പോൾ നമുക്ക് കിലോമീറ്ററിന് ന് എത്ര വച്ചിട്ടാണ് നമ്മുടെ റേറ്റ് നമ്മൾ തന്നെയാണല്ലോ ഓടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആണല്ലേ ഓ നാൽപ്പത്തി എട്ട് രൂപ വരും അല്ലെ ഒകെ ഒകെ ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരുമിച്ചാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ അല്ല ഓകെ ഓകെ ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെ വൈകും എന്നിണ്ടെങ്കിൽ തന്നെ അഡീഷണൽ ചാർജ് അങ്ങനെ നമുക്ക് അത് എക്സ്റ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ അതൊന്നും പ്രശ്നമുണ്ടാവില്ലാലോ അല്ലെ അ ഞങ്ങളിപ്പോൾ രണ്ട് അങ്ങനെ ഇപ്പോൾ ഡിലെ ആവുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ പറയുന്നതായിരിക്കും മുൻകൂട്ടി അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചാർജിന് വ്യത്യാസം വരും അല്ലേ ഒകെ ഒകെ അതൊന്നും അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഓക്കേ ഏന്നാൽ താങ്ക് യു